ഫോട്ടോഗ്രാഫി എന്നുപറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജീവിത ഉപമാർഗ്ഗമായിട്ടാണ് കാണുന്നത് കാരണം എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും വിവാഹ വിവാഹത്തിനാണെങ്കിലും ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യമൊരു നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം അവരുടെ ഒരു നമ്മൾ ഇപ്പോൾ നല്ല ഒരു പൈസക്കാരുടെ വീട്ടിലാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരുടെ സേവ് ദി ഡേറ്റ് തൊട്ട് മറ്റേർണിറ്റി ഷൂട്ടും പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോ ഷൂട്ടും എല്ലാം എടുക്കാൻ പറ്റും അപ്പം ആ കാര്യങ്ങൾ ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യാറ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല മാത്രമല്ല നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപമാർഗ്ഗം കൂടിയാണ് ഇപ്പോൾ ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ കൂടുതലും എന്താ പറയുക ഇങ്ങനത്തെയൊക്കെ ഫീൽഡിൽ ഒക്കെയാണ് വരുന്നത് ഇങ്ങനത്തെ ഫീൽഡ് ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വർക്കും കിട്ടും നല്ല പൈസയും കിട്ടും കാരണം ഇപ്പോൾ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കാനാണ് ആഗ്രഹം വന്ന് സിഡിയിൽ ആക്കുകയോ ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ആൽബം ആക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒക്കെ ഭയങ്കര ഉഷാറാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിവാഹത്തിന് ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശമൊരു അറുപത് എഴുപതിനായിരം രൂപ എൻ്റെ മുകളിൽ ചിലവരുടെ നല്ല നല്ല ആൾക്കാരുടെ അടുത്ത് പോയിക്കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ മുകളിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം അതിനകത്തൊരു മുപ്പതിനായിരം ചിലവ് വന്നാലും ബാക്കി പൈസ നമ്മുടെ കൈയിൽ ഇരിക്കും കാരണം എന്താന്നുവെച്ചാൽ ഇങ്ങനത്തെ സാധങ്ങൾ ഒക്കെ ഉണ്ടാകണം എങ്കിൽ അത്യാവശ്യം പൈസ വേണമല്ലോ അതുകൊണ്ട് അപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു ഉപജീവനമാർഗ്ഗമാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും